ഇന്ത്യയില് രണ്ടായിരങ്ങൾക്ക് മുൻപേ തന്നെ ഒരുപാട് യോഗാ ഗുരുക്കള് വന്നിട്ടുണ്ട് അവരില് ചിലവരാണ് ആദിശങ്കരാചാര്യ അഭിനവ് ഗുപ്ത ലാഹരി മഹാസ്യ ശ്രീരാമകൃഷ്ണ പരമഹംസ സ്വാമി വിവേകാനന്ദ രാമന മഹേ മഹർഷി സ്വാമി ശിവനന്ദ സരസ്വതി അതുപോലെ മഹാഋഷി മഹേഷ് യോഗി അതുപോലെ ശ്രീ ശ്രീ രവിശങ്കർ ഇവരൊക്കെ പണ്ട് രണ്ടായിരങ്ങൾക്ക് മുമ്പ് മുൻപുള്ള യോഗാ ഗുരുക്കന്മാരാണ് ഇവരെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എങ്കിൽപ്പോലും ചിലരെ നമുക്ക് പരിചയം ഇല്ല അത് പണ്ട് ആയിരത്തി എണ്ണൂ എണ്ണൂറുകൾക്കൊക്കെ മുൻപേയുള്ള ആൾക്കാരാണ് എന്നാല് സ്വാരി സ്വാമി രാംഭേവ് എന്ന രാംദേവ് എന്ന ഒരു യോഗാ ഗുരു ഉണ്ട് അതാണിപ്പം നമുക്ക് അറിയപ്പെടുന്ന എല്ലാവരിലേക്കും എത്തിക്കുന്ന അതെന്ന് വെച്ചാല് നമുക്കെല്ലാവർക്കും നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ പലർക്കും അറിയപ്പെടുന്ന ഒരാളാണ് സ്വാമി രാംദേവ് എന്ന ഒരു യോഗാ ഗുരു ഇവരെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചിവി ടീ വി ചാനലുകളിൽ ഒക്കെ നമുക്ക് കാണാം ഇവരേ രണ്ടായിരത്തി രണ്ട് മുതൽ തന്നെ ഈ ഒരു ഈ യോഗ ഗുരു ഈ സ്വാമി രാംദേവ് എന്ന ആള് പല തരത്തിലുള്ള ടി വി ചാനല് ഇവരുടെ യോഗാ പ്രക്രിയകള് നമുക്ക് മുൻപില് കാണിക്കുന്നുണ്ട് ഇവരുടെ വരവോടുകൂടി അതുപോലെത്തന്നെ ഇവര് എല്ലാവരിലും യോഗയെ പറ്റി ഉള്ള അറിവ് എത്തിക്കണമെന്നും അതുപോലെ ആയുർവേദിക്കിൻ്റെ മാഹാത് ആയുർവേദിക്കിനെ പറ്റിയുള്ള ഗുണങ്ങളും നമ്മളിലേക്കെത്തിക്കുന്നുണ്ട് അതുപോലെ ഇവര് എന്ന് പറയുന്നത് ഒരു ബിസ്സിനസ്സ്മാനും അതുപോലെ പതഞ്ജലി ആയുർവേദയുടെ ഒരു അംബാസിഡറും കൂടി ആണ് ഈ സ്വാമി രാംദേവ് എന്ന യോഗാ ഗുരു ഇവരെപ്പറ്റിയാണ് ഒരുപാട് ആൾക്കാരെപ്പറ്റി ഇവരെപ്പറ്റി എല്ലാവർക്കും നമുക്ക് അറിയാം നമ്മൾ ടീ വി യിലാണെങ്കിലും കാണാറുണ്ട് ഓരോ ചാനലുകളിലൊക്കെ വരുന്നത് കാണാറുണ്ട് അതുപോലെത്തന്നെ യോഗ ഈ അവരെങ്ങനെയാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത് എന്ന് വെച്ചാല് അവരെന്ന് വെച്ചാല് അവർക്ക് ഏതൊരു അവരുടെ ശരീരം നമുക്ക് നോക്കിയാൽ മതി അവർക്ക് ഏത് എത്ര വയസ്സായാലും എത്ര ഏജ് ആയാലും അവർക്ക് ആ ഒരു വയസ്സ് അവരെ ബാധിച്ചി ബാധിച്ചിട്ടേ ഉണ്ടാവില്ല അവർക്കേതൊരു ഏതു നമുക്കിപ്പോൾ അറിയാമല്ലോ ഓരോ ആസനങ്ങള് ഏതൊരു ആസനം ചോദിച്ചാലും അവരത് കാണിച്ചു തരുന്നുണ്ട് അപ്പം നമുക്കും അത് കണ്ടിട്ട് നമുക്കും അതുപോലെ പഠിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നല് നമ്മളില് വരുത്തുന്നുണ്ട്